ഗുഡ് ഈവ്നിംഗ് എന്റെ പേര് ആതിര ശ്രീകാന്ത് ഞാന് മങ്ങാട്ടുകരയിൽനിന്നാണ് വിളിക്കുന്നത് അങ്കമാലി ഞാന് നാളത്തേക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നു രാജേഷ് എന്നല്ലേ പേര് ഓക്കെ ആ ഞാന് നാളത്തേക്ക് ഒര് ക്യാബ് ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ അത് കറക്ട് ടൈമിങ്ങിൽ ഞാന് പത്തരയ്ക്കാണ് ബുക്ക് ചെയ്തത് ടൈം ഓണ് ടൈമിൽ വരുമോയെന്ന് അറിയാന് വേണ്ടിയിട്ടായിരിന്നു എനിക്ക് എയര്പോര്ട്ട് വരെ പോവാനായിരുന്നു അതെ എനിക്ക് പതിനൊന്നെ മുപ്പതിനാണ് ചെക്കിങ്ങ് ചെയ്യേണ്ടത് ടൈം അപ്പോൾ പത്തരയ്ക്ക് കറക്ടായിട്ട് വന്നാലാണ് നമുക്ക് ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്താന് പറ്റത്തുള്ളു നല്ല ബ്ലോക്കുണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഞാന് ചോദിക്കുന്നത് എനിക്ക് പത്തര വിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കറക്ട് ടൈമിങ്ങിൽ തന്നെ എത്തിച്ചേരാന് പറ്റുമോ

ഞാന് രാവിലെ വിളിക്കണോ ഒന്നുംകൂടി വിളിച്ച് റിമമ്പർ ചെയ്യാന് വേണ്ടിയിട്ട് വിളിക്കണോ ആ ഓക്കെ ഇനി ഞാന് എയർപോർട്ടായതു കൊണ്ട് ചെക്കിൻ കറക്ട് ടൈമിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലൊ അതുകൊണ്ടാണ് ഞാന് വീണ്ടും വീണ്ടും പറയുന്നത്

ആണ് ആണല്ലെ ആ ഓക്കെ ആ അങ്കമാലി ആണ് അങ്കമാലി അങ്കമാലി മങ്ങാട്ടുകര അതുതന്നെ കെ എസ് ആര് ടി സി ബസ്സിൽ ആ അതെ ആ അത് ആ റൂട്ട് തന്നെ ഓക്കെ ഈ ഇയാൾ തന്നെയാരിക്കുമോ വരുന്നത് രാജേഷ് തന്നെ ആയിരിക്കുമോ വരുന്നത് ഓക്കെ ഓക്കെ താങ്ക് യൂ ടെൻ തേര്ട്ടി എ എം ഓക്കെ താങ്ക് യൂ